ഹലോ ഞാൻ എറണാകുളത്തുനിന്ന് വരുവായിരുന്നേ അപ്പോൾ കോഴിക്കോട് നിന്നൊരു റെൻറ്റിന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് എനിക്ക് എനിക്ക് ഒരു എന്താണ് പറയുക ഇപ്പോൾ കുറച്ച് ഒരു നല്ലൊരു ടൈപ്പ് വണ്ടിയും വേണം പിന്നെ എൻ്റെ കൂടെ രണ്ടുമൂന്ന് പേർ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊരു നോർമൽ ടൈപ്പ് വണ്ടി

അത്യാവശ്യം നല്ലൊരു ഓഫ്റോഡ് ഒക്കെ പോകാൻ പറ്റിയിട്ടൊരു വണ്ടി ആ പിന്നെ അവർക്കുള്ളതൊരു പൾസർ ആ റേഞ്ചിൽ വരുന്ന വണ്ടി മതിയെന്നാണ് അവർ പറഞ്ഞത് ആ അത് കുഴപ്പമില്ല അതുമതി നമ്മുടെ ബി എം ഡബ്ള്യുൻ്റെയല്ലേ ആ അതുകുഴപ്പമില്ല അതായാലും മതി അതിനെത്ര റെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് പെർ ഡേ അല്ലേ നമുക്കിപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോയിക്കൂടേ നമുക്കിപ്പോൾ കേരളത്തിൽ മാത്രമല്ല പുറമേയും പോകാൻപറ്റും ആ ഇതുവരുന്നതല്ലേ

ആ അഡിഷണൽ അല്ലെ ഓക്കെ ഓക്കെ ആ അത് കുഴപ്പമില്ല അതു നമുക്ക് പേയ്മെന്റ് ചെയ്യാം അത് കുഴപ്പമില്ല എന്തായാലും ഞാൻ ഒരു ദിവസം എന്തായാലും നാനൂറ് കിലോമീറ്ററിനെന്തായാലും മുകളിൽ ഓടിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും അത്രയും കിലോമീറ്റർ ഒന്നും പോവില്ല അപ്പോൾ അത് കുഴപ്പമില്ല അഥവാ പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ റെഡി ആണ് കുഴപ്പമില്ല ആ പിന്നെ മറ്റവർക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് വണ്ടിയാണ് വേണ്ടത് അപ്പോൾ രണ്ടും പൾസർ ആയാലും കുഴപ്പമില്ല റേഞ്ച് വേണമല്ലേ ഓക്കെ ഓക്കെ അതും നമുക്കെവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം അല്ലേ ആ അത് കുഴപ്പമില്ല അതായാലും മതി

വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഇതിന് അല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരണോ ഈ എന്തെങ്കിലും നമ്മൾ ഐ ഡി കാർഡോ ലൈസൻസ് മാത്രം മതി അല്ലേ വേറെ ആധാർ കാർഡ് അങ്ങനത്തെ ഒന്നും വേണ്ട ഓക്കെ ഓക്കെ വണ്ടീൻ്റെ പേപ്പർ ഒക്കെ അതിനകത്ത് തന്നെയുണ്ടാവുമോ അതോ എങ്ങനെയാണ് അയച്ചുതരും വാട്സപ്പ് ചെയ്തുതരും ഓക്കെ അതു നമുക്കിപ്പോൾ വേറെ എവിടെയെങ്കിലും പോകുന്നതിലും പ്രശ്നമില്ലേ ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തുപോകുമ്പോൾ അവർ ചെക്കിങ് ഒക്കെ ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പല പ്രശ്നങ്ങളൊക്കെ ആവുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ ചെയ്തുതരുമല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ വരാം എന്നാൽ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ നാളെ വന്നിട്ട് വണ്ടി എടുക്കാം ഓക്കെ എന്നാൽ